ഹലോ ഇത് കഫെ അല്ലായിരുന്നോ ഞാൻ എൻ്റെ പാൻ കാർഡും അങ്ങനത്തെ കുറച്ചു സാധനങ്ങൾ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നു ഡിജിലോക്കറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരിക്കുന്നത് എൻ്റെ ഇതിന് മുമ്പും ഞാൻ ഡിജിലോക്കറിൽ ഇതാക്കിയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ നമ്പറിപ്പം എൻ്റെ നിലവിൽ എൻ്റെ കൈയിയിൽ ആ നമ്പർ ഇപ്പം ഇല്ല ഞാൻ ഈ ഇടയ്ക്ക് ഒന്നു ഫോൺ മാറ്റിയ സമയത്ത് മറ്റെ നമ്പർ ഒന്നു കളഞ്ഞു അപ്പം ഇപ്പം ഒരു പുതിയ നമ്പറ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് അവർ ചോദിക്കുന്നത് പഴയ ഫോണിലോട്ടാണ് അതിൻ്റെ ഒ റ്റി പി ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ നമ്പറിലോട്ട് അപ്പം ആ നമ്പറ് നമ്മുടെ കൈയിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് അപ്ഡേറ്റ് ആവുന്നില്ല അപ്പം അതിന് നിങ്ങളെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരണം എൻ്റെ ഈ സാധനങ്ങളെല്ലാം പാൻ കാർഡ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ ഇപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ ഇതിൽ നിന്ന് ഒ റ്റി പി ചോദിക്കുന്നത് മറ്റെ പഴയ നമ്പറിലോട്ടാണ് പോകുന്നത് ആ നമ്പറാണെ ഇപ്പം നിലവിൽ എൻ്റെ കൈയിൽ ഇല്ല അത് എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു സൊലൂഷൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതൊന്ന് സെറ്റ് ആക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇപ്പം ഈ അക്ഷയയിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ എന്റെ പാൻ കാർഡും ഈ ആധാർ കാർഡ് ഒക്കെയും കൂടി ഒന്ന് ഡിജിലോക്കറിലോട്ട് ഒന്നു മാറ്റി സേഫായിട്ട് ഒന്നു നിങ്ങൾ സെറ്റ് ആക്കി തരണം